ആ എൻ്റെ വീട്ടിൽ നല്ല മനോഹരമായ ഒരു പൂന്തോട്ടം ഉണ്ട് അത് ഞങ്ങള് നല്ല രീതിയിൽ തന്നെ മെയിൻ്റെയിൻ ചെയ്ത് പോരുന്നുണ്ട് അതിലേക്കൊള്ളതെന്ന് വെച്ചാൽ ഞ ആദ്യം തുടങ്ങിയ സമയത്ത് ഞങ്ങള് അത് വെളീന്ന് ഷൊ മേടിക്കുവായിരുന്നു ചെടികളൊക്കെ പൂക്കളൊക്കെ നല്ല മനോഹരമായ പൂക്കളൊക്കെ വാങ്ങിച്ച് പ പൈസ കൊടുത്ത് വാങ്ങിത്തന്നെ വെക്കുവായിരുന്നു പിന്നെ നല്ല വിപുലീകരിച്ച് സെറ്റാക്കാന് വേണ്ടി തീരുമാനിച്ചപ്പം നമ്മള് വീടുകളിലൊക്കെ പോവലും ഫ്രണ്ട്സിൻ്റെ വീടുകളിലാണെലും ഫാമി റിലേറ്റീവ്സിൻ്റെ വീടുകളിലാണെലും പല പല ചെടികള് പ കാണുമ്പം അത് ത തൈ പറിച്ചോണ്ട് വന്ന് അതും കൊണ്ട് വെച്ച് തുടങ്ങി അപ്പം ഇപ്പ നല്ല രീതിയില് നല്ല ഗാർഡനിങ്ങാണ് പല തരത്തിലുള്ള ഒരു പതിനെട്ട് വെറൈറ്റീസൊള്ള ഒരു ഒരുപാട് പൂക്കള് തന്നെയുണ്ട് അതിനകത്ത് അപ്പം ഇപ്പം തുടക്കത്തിൽ നമ്മള് വാങ്ങുവായിരുന്നു കാരണം എല്ലാ വെറൈറ്റിയാണല്ലോ പിന്നെയാണ് നമ്മള് പല പല സ്ഥലത്ത് ഇപ്പം നമ്മള് യാത്ര ചെയ്യുമ്പഴാണേൽ പോലും അത് സെലക്റ്റെയ്യാനും വാങ്ങാനും ഒക്കെ ഒരു ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് കാരണം ഇവിടെ ഇല്ലാത്ത ചെടികളാണ് കൂടുതൽ നമ്മള് തപ്പുന്നത് അപ്പം ഓൾറെഡി എല്ലാ വീടുകളിലും നമ്മള് ശേഖരിച്ച് കൊണ്ട് വെച്ച് അത്പോലെ മനോഹരായിട്ട് വെച്ചു പൊ പിന്നെ നമ്മള് ട്രാവലെയ്ത് പോവുമ്പഴാണേൽ തന്നെ കാണുന്നതും നമ്മളെടുത്ത് വാങ്ങി വെക്കും കാരണം അതൊന്നും നമ്മുടെ ഇവിടെ ഇല്ലാത്തതാണെങ്കില് അതും വെറൈറ്റി അല്ലെ അപ്പം ഏറ്റവും കൂടുതൽ ഇല്ലാത്ത പ്ലാൻറ്റ്സാണ് കൂടുതലും മുൻ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സാണ് നമ്മള് പ്ലാൻറ്റിങ്ങ് ചെയ്യുന്നത് അപ്പം മെയിനായിട്ടും നല്ലൊരു ടൈം സ്പെൻഡെയ്യാൻ ഫ് ഫ്രീ അവേഴ്സില് ഏറ്റവും കൂടുതല് ഗാർഡനിങ്ങന്നെയാണ് ചെയ്യുന്നത് അപ്പം എൻ്റെ തോട്ടത്തില് ഞാൻ ഏറ്റവും കൂടുതല് മീൻസ് ഇങ്ങനത്തെ വാങ്ങാറുണ്ട് അല്ലാതെ വീടുകളിൽ നിന്ന് ശേഖരിക്കാറുവുണ്ട്